ബൈക്കിലെ യാത്രയിൽ നമ്മളെപ്പോഴും കയ്യിൽ കരുതേണ്ട ഒന്നാണ് സ്പാനർ സ്ക്രൂ ഡ്രൈവർ കേബിൾ പ്ലെയർ കട്ടർ ഇതൊക്കെ എന്താണെന്നു വെച്ചാൽ നമ്മളിപ്പോൾ ചെറിയ യാത്ര ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ വണ്ടി ചിലപ്പോൾ ഓഫ് ഓവർ റൈഡ് നമ്മൾ നിർത്താതെ ഓടി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റാകും ഇങ്ങനത്തെ പ്രശ്നം ബൈക്കിനു വന്നു കഴിഞ്ഞാൽ ഈയൊരു മെക്കാനിക് പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യുക വെച്ചാൽ വണ്ടി കുറച്ചു നേരം ഓഫാക്കി ഇടുക എന്നുള്ളതാണ് ലോ റേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിന്ന് പോകാനും ബാറ്ററി ഇറങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മളെന്താ ചെയ്യുക കുറച്ചു നേരമൊന്ന് നമുക്ക് റെസ്റ്റ് എടുക്കുന്ന മാതിരി വണ്ടിക്ക് കുറച്ചു നേരം റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പം എന്തെന്നു വെച്ചാൽ നമ്മളുടെ ആക്സിലറേറ്റർ കേബിൾ ചിലപ്പോൾ കട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ ബ്രേക്കൊക്കെ മറ്റേ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പാനർ ഉപയോഗിച്ചതിൽ ബ്രേക്ക് ടൈറ്റ് ചെയ്യാൻ കഴിയും തൽക്കാലികാശ്വാസം എന്നാകും ബൈക്ക് ടൈറ്റ് ചെയ്തതായിട്ട് നമുക്ക് അടുത്ത സ്ഥലം വരെ അടുത്തൊരു മെക്കാനിക് ഷോപ്പ് എത്തുന്ന വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ഇതിലൂടെ അതുപോലെ സ്ക്രൂ ഡ്രൈവറൊക്കെ ഹാൻഡിൽ ലൂസ് ആകുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ സ്ക്രൂ ഡ്രൈവർ സ്പാനർ ഉപയോഗിച്ച് നമ്മൾക്ക് ടൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയും പിന്നൊന്നാണ് ചെയിൻ പ്ലെയർ നമ്മൾ ഓട്ട്രേൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം

ക്ലച്ച് പിടിക്കാതെ ഗിയർ മാറ്റുക അങ്ങനത്തെയൊക്കെ ചില പ്രോബ്ലംസ് അതേ മാതിരി ഓടിക്കുന്ന ചില മൂലം ചെയിൻ ലൂസ് ആകും ചെയിൻ ലൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റ് ലൂസ് ആയി കഴിഞ്ഞാൽ ചെയിൻ പൊട്ടാൻ വരെ ഒരു ചാൻസുണ്ട് അന്ത സാഹചര്യം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ പ്ലെയറും ചെയിൻ കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയിൻ ടൈറ്റ് ചെയ്യാനോ ഡയറക്റ്റ് ചെയിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാൽ ടൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയിൻ പ്ലയർ ഉപയോഗിച്ചത് കട്ട് ചെയ്തതായിട്ട് ടൈറ്റ് ചെയ്യാനും കഴിയും പിന്നെ യാത്ര ചെയ്യുന്നതിൻ്റെ പ്രധാന പ്രശ്നമാണ് ടയർ പഞ്ചറാകുക എന്നുള്ളത് ഈ ഒരു പ്രശ്നത്തിനുള്ള ആകെ ഒരു പരിഹാരം എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ചെറിയൊരു ഹാൻഡ് പമ്പ് കരുതുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലമൊന്ന് ഹാൻഡ് പമ്പ് ഉപയോഗിച്ച് കാറ്റടിച്ചിട്ട് അടുത്തൊരു മെക്കാനിക് ഷോപ്പ് വരെ നമുക്ക് അത് എത്തിക്കാൻ സാധിക്കും എത്തി കഴിഞ്ഞാൽ പിന്നെ പഞ്ചറടക്കുക എന്നുള്ളതാണ് ഒരു ഹാൻഡ് പമ്പ് കൈയ്യിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നമങ്ങനെ സോൾവ് ചെയ്യാം പ്രത്യേകിച്ചും ലോങ് ട്രിപ്പും ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ അതൊക്കെ ഉപകാരപ്പെടും അതൊക്കെ